ആ മാഡം പറയൂ

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇന്നലെ മഴയോ അങ്ങനെ എന്തെങ്കിലും നനഞ്ഞിരുന്നോ ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ തലേ ദിവസം എന്തേലും കഴിക്കുകയോ അങ്ങനെ എന്തേലും ചെയ്തായിരുന്നോ അതായത് പുറത്തുനിന്ന് എന്തേലും ഫുഡ് കഴിക്കുകയോ അങ്ങനെ എന്തേലും ചെയ്തായിരുന്നോ എന്താ കഴിച്ചത് ആ അതെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ പിന്നെ അവിടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ആ ഓക്കെ വേറെ എന്തേലും മരുന്ന് എന്തേലും കുടിച്ചതോ അങ്ങനെ എന്തേലും ചെയ്തായിരുന്നോ ആ ഓക്കെ എത്ര എണ്ണം കഴിച്ചായിരുന്നു കുറയുന്നില്ല അല്ലേ ആ ഓക്കെ ആ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ ആയിരിക്കും ഒന്നാമത് ഇപ്പോൾ ഒന്നാമത് പകർച്ച വ്യാധികളൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പടർന്ന് പിടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആയിരിക്കാം പിന്നെ ഇപ്പോൾ ഷവർമ ഒക്കെ വല്ലാണ്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണം ഈ സമയത്തു കഴിക്കരുത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പം ഫുഡിൻ്റെയും വരാം ആ ഓക്കെ പിന്നെ നാളെ ഒന്ന് ഇവിടെ വരാൻ പറ്റുമോ ക്ലിനിക്കിലേക്ക് ആ ഓക്കെ പിന്നെ വരുമ്പോൾ ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യണം ആ പിന്നെയൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക പിന്നെ ആ വരുമ്പോൾ മകനേയും കൂടെ ഒന്ന് കൊണ്ട് വരണം അവനെയും ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും മോന് ഉണ്ടല്ലോ ചെറുതായിട്ട് ആ ബുക്ക് ചെയ്യട്ടെ എന്നാൽ ഇപ്പോൾ പേര് റസീനായെന്ന് അല്ലേ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ രാവിലെ ഒരു പത്ത് മണി ആകുമ്പോഴത്തേക്കും പോര് കേട്ടോ ഓക്കെ എന്നാൽ ആ ശരി